ഹലോ എടാ എന്താ പരിപാടി എവിടെയാ ഉള്ളത് പിന്നെ നമുക്ക് അടുത്ത ആഴ്ച ഒര് കല്യാണം ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ പാസ്പോർട്ട് ശരിയല്ല അതൊന്ന് ശരിയാക്കേണ്ടതിന് ഇവിടെ യു കെയിൽ വെച്ചാണ് കല്യാണം നമ്മളുടെ മറ്റേ ഫ്രണ്ടില്ലേ പ്ലസ് ടൂവില് നമ്മളൊരുമിച്ച് പഠിച്ചത് ആ അവൻ തന്നെ അവൻ തന്നെ ആ അവൻ്റെ കല്യാണമാണ് നിന്നേ വിളിച്ചിട്ടില്ലായിരുന്നു എന്നോട് പിന്നെ പറഞ്ഞായിരുന്നു എന്താ നിന്നേ കൂട്ടണം എന്നൊക്കെ നിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല പറഞ്ഞത് ആ ഓക്കെ ആ നമ്പറ് മാറ്റിയല്ലേ നീയ് ആ ഓക്കെ മറന്ന് അതിൻ്റെ കാര്യം എന്തായാലും എനിക്ക് പാസ്സ്പോർട്ടോന്ന് ശെരിയാക്കണം നീ ഒന്ന് ശരിയാക്കി വെച്ചോടാ നിന്റെ പാസ്പോർട്ട് സെറ്റല്ലങ്കില് ആ നിൻ്റെ ശെരിയാണോ ആ എന്നാൽ പിന്നെ എൻ്റെ ശരിയാക്കാനുണ്ട് എൻ്റെ ശരിയാക്കിയിട്ട് വേണം സെറ്റാക്കാൻ പിന്നെ എന്ത്ന്നാ ഇപ്പം എവിടെയാണ് നീ അവന് എന്തേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങണ്ടേ അപ്പം നമുക്ക് ഗിഫ്റ്റ് നോക്കുവാണേൽ യു കേയിലേക്ക് അല്ലേ പോകുന്നത് അപ്പം അവിടുന്ന് വാങ്ങണോ നമുക്ക് അല്ല ഇവിടുന്ന് എവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ട് പോയാൽ മതിയോ നമുക്കിവിട്ന്ന് രണ്ട് റമ്മോ മറ്റോ വാങ്ങിയിട്ട് പോയാലോ കടത്തി വിടുവോ മറ്റേ ഇതിൽകൂടെ മറ്റേ എയർപ്പോട്ടിൽ കൂടെ ആ ദാ നോക്കാം അല്ലാണ്ട് പിന്നെ സ്വർണ്ണം കടത്തിയതിന് പോലെ പിടിക്കേണ്ടി വരും ആ അത് നമുക്ക് സെറ്റ് ആക്കാമെടാ